നമുക്കിപ്പോൾ വളർത്ത് മൃഗങ്ങളെ കൊണ്ട് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാലിപ്പോൾ കൂടുതലും വരുമാനം ആക്കാൻ പറ്റിയ പശുവിനെ കൊണ്ടാന്ന് പശുവിനെ ഇപ്പോൾ നമ്മൾ അതിനെ വളർത്തിക്കഴിഞ്ഞാൽ ഞമ്മക്കതിനെ കൊണ്ട് പാൽ പാലുപയോഗിക്കാം പാൽ പിന്നെ ചാണകം ചാണകം ഇപ്പോൾ ഞമ്മക്ക് കൃഷിക്കും ചെയ്യാം ഇപ്പം പുറത്തുള്ളവർ കൃഷി ചെയ്യാൻ വേണ്ടിക്കെ നമുക്ക് നമ്മളോട് ചാണകത്തിന് ചോദിക്കുന്നുണ്ട് അതും നമുക്ക് പൈസക്ക് കൊടുക്കാം പാൽ പൈസക്ക് കൊടുക്കാം നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിന് അത് കെമിക്കലൊന്നുമില്ലാതെ പാലുപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കൊണ്ടിനും പശുവിനെ കൊണ്ട് നല്ല കാര്യമാന്ന് പിന്നെ പശുവിൻ്റെ മൂത്രം ഞമ്മക്ക് കൊണ്ട് പോയി വാഴക്കും അതിനും ഇതിനും ഒഴിച്ചാൽത്തന്നെ നല്ല കാര്യമാന്ന് അപ്പോൾ പശുവിനെ ഇപ്പം നമുക്കിപ്പം കുറച്ച് തീറ്റയും പുല്ലും വാങ്ങി കൊടുക്കാൻ പിന്നെ അതിനെ കൊണ്ട് പാല് മാത്രമല്ല നമുക്ക് തൈരും ഉണ്ടാക്കാം ആ തൈരും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞമ്മക്ക് അതിനെ കൊണ്ട് മോരുണ്ടാക്കാം മോരുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെണ്ണയെടുക്കാം വെണ്ണയെടുത്ത് അതിനെക്കൊണ്ട് നെയ്യാക്കാം നെയ്ക്കെല്ലാമെന്ന് പറഞ്ഞാൽ ഇപ്പം പുറത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ നല്ല പൈസ കിട്ടും നമുക്ക് സ്വന്തം ആവശ്യത്തിനെടുക്കാം നമ്മള കുട്ടികൾക്കെല്ലാം കൊടുക്കാനും ഞമ്മള് തന്നെ ഉണ്ടാക്കിയ സാധനമാകുമ്പോൾ നമുക്ക് നല്ല വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ അപ്പോൾ നമ്മൾ ഇപ്പോൾ പശുവിനെ വളർത്തുകയാണെങ്കിൽ ഞമ്മളടുക്കെ തന്നെ ഇപ്പോൾ ഇഷ്ടമ്മാതിരി ആൾക്കാർ വന്ന് പാൽ വാങ്ങിയിട്ടു തന്നെ പോകുന്നുണ്ട് നമ്മൾ പശുവിനെ അതുപോലെ തന്നെ നോക്കാൻ നിൽക്കണം അതിനു തീറ്റയും വെള്ളമൊക്കെ നന്നായിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് പാൽ തരും പാല് തന്ന് അത് കഴിഞ്ഞാൽ ഞമ്മള് അത് ഞമ്മള് ആവശ്യത്തിന് കഴിഞ്ഞാൽ തന്നെ ഞമ്മക്ക് ഒരു മൂന്നാല് ലിറ്റർ പാൽ പുറത്ത് കൊടുക്കാൻ തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കും നമ്മളുടെ കുടുംബക്കാർക്കും എല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഞമ്മക്ക് പുറത്ത് കൊടുക്കാൻ ഒരു മൂന്നാല് ലിറ്ററിൻ്റെ ഒരു കുറവുമില്ല ഞമ്മളങ്ങനെ പുറത്ത് കൊടുത്ത് നമുക്ക് ഒരു ഗ്ലാസിന് പന്ത്രണ്ട് രൂപേൻ്റെ രീതിയിലാന്ന് ഞമ്മള് വാങ്ങുകയോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞമ്മളങ്ങനെ പുറത്ത് കൊടുക്കലുണ്ട് ഞമ്മക്കത് പൈസ ഇങ്ങോട്ട് വരുമാനം കിട്ടുന്നുണ്ട് ചാണകത്തിനാണെങ്കിലും ഒരു കൊട്ടക്ക് നൂറ് നൂറ്റി അൻപത് ഉറുപ്യേൻ്റെ രീതിയിൽ ഞമ്മള് വാങ്ങുന്നുണ്ട് ഞമ്മള് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കതിനെ കൊണ്ട് നല്ല ലാഭമെല്ലാമുണ്ട്